നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നമ്മുടെ വീട് വീടിൻ്റേതായ പരിസരങ്ങൾ നമ്മുടെ എക്കോസിസ്റ്റം നമ്മുടെ ആവാസവ്യവസ്ഥ അത് ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം നമുക്കറിയാം നമ്മുടെ വീട് നൽകുന്ന ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം അപ്പോൾ നമ്മളെ സൃഷ്ടിക്കുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ വീടും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളുമൊക്കെ അപ്പം അതേറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട് ഉത്തരവാദിത്വവുമുണ്ട് അത് പുതിയ തലമുറയ്ക്ക് ആവൊരു സന്ദേശം കൈമാറാനായിട്ട് മറ്റുള്ളവർക്ക് ആ സന്ദേശം കൈമാറുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമുക്കറിയാം ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല മനുഷ്യൻ്റേത് മാത്രമല്ല ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയുമാണ് അതുപോലെതന്നെ ഇനിയും ഭാവിയിൽ ജനിക്കാനിരിക്കിന്ന അനേകം തലമുറകൾക്കുകൂടി അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മടെ ഈ വായുവും വെള്ളവും മണ്ണുമൊന്നും മലിനമാകാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ഉത്തരവാദിത്വം നമുക്കോരോരുത്തർക്കുമുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മലിനീകരണം അപ്പോൾ അത് നമ്മുടേ തോടുകളും റോഡുകളും ഒക്കെ അതിവേഗം മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം വ്യക്തികൾപോലും അവരുടെ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നൊരു ഒരു രീതി കണ്ടുവരുന്നുണ്ട് അത് വളരെ അപകടകരമായ ഒരു രീതിയാണ് തെറ്റായൊരു സന്ദേശമാണ് അതിലൂടെ നമ്മൾ കൊടുക്കുന്നത് അപ്പം അത് നമ്മുടെ അതിൻ്റെ ഉറവിടങ്ങളിൽത്തന്നെ സംസ്ക്കരിക്കുവാനുള്ള ഒരു കാര്യങ്ങൾ പഠിച്ച് അതു ചെയ്യണം പ്രത്യേകിച്ച് അജൈവ മാലിന്യങ്ങളെ ആ രീതിയിൽ വേർതിരിച്ചെടുക്കുവാനും അതിനെ റീസൈക്കിളെയ്ത് ഉപയോഗിക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ വിറ്റ് അതൊഴിവാക്കാനൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കണം ജൈവ മാലിന്യങ്ങളാണെങ്കിലത് അതിൻ്റെ ഉറവിടങ്ങളിൽത്തന്നെ സംസ്ക്കരിച്ച് അത് വളമായിട്ടോ ഒക്കെ അതിനെ മാറ്റുവാനായിട്ട് നമുക്ക് കഴിയണം അപ്പം നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ നമുക്കെളുപ്പമായിട്ട് മനസ്സിലാവും ഒന്ന് നമ്മൾ പരിസരങ്ങൾ വൃത്തിയായിട്ട് പ്രത്യേകിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ നടക്കണം അതിന് ഏറ്റവും വേണ്ടത് നമ്മൾ കാടും ചപ്പുചവറുകളെല്ലാം നീക്കം ചെയ്ത് ഒരു ആകർഷകമായിട്ടുള്ളൊരു പരിസരങ്ങൾ സൃഷ്ടിക്കണം അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു ചുറ്റുപാടവിടെ ഒരുക്കണം

തന്നെയുമല്ല ആരോഗ്യവും കിട്ടും നമുക്കറിയാം സസ്യങ്ങൾ ചെടികളൊക്കെ നമുക്ക് ശുദ്ധവായു ആവശ്യമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയാം അതുപോലെ നമ്മുടെയൊരു വേറിട്ട വിനോദോപാതിയായി മാറും തന്നെയല്ല നമുക്ക് പ്രകൃതിയുമായിട്ട് ഒരടുപ്പമുണ്ടാകാൻ സാധിക്കും നമുക്ക് ചെറിയൊരു വ്യയാമം നല്കുന്നതാണ് ഇനി നമുക്ക് പച്ചക്കറിപോലുള്ള കൃഷികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സാമ്പത്തികലാഭം ലഭിക്കുന്നുണ്ട് വിഷാംശമില്ലാത്ത ആഹാരം കഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള പച്ചക്കറികൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അതുപോലെ നമുക്കറിയാം വീടും പരിസരവുമൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ആകർഷകമായിട്ട് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടിനെ സ്നേഹിക്കുന്നു അത് മറ്റുള്ളവർക്കൊരു നല്ല മെസ്സേജ് നല്ലയൊരു സന്ദേശം കൂടിയാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് നമ്മുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ കാണുമ്പോഴൊരു കണ്ണിന് മാത്രമല്ല മനസ്സിനും അവരുടെ ബുദ്ധിക്കും അറിവിനുമൊക്കെയൊരു പുതിയ സന്ദേശം നമ്മൾ കൊടുക്കുകയാണ് അതിനെല്ലാ നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കിന്നുയെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ പ്രകൃതിയെന്ന് പറയുന്നത് നമ്മുടെ വീടും ചുറ്റുപാടുകളാണ് ആ ചുറ്റുപാടുകളെ നമുക്ക് മനോഹരമായിട്ടുള്ള മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടും അതുപോലെതന്നെ ഫലവൃക്ഷങ്ങളുണ്ട് ചെടികളുണ്ട് ആഹാര വിളകളുണ്ട് ഇതൊക്കെ നമുക്ക് നട്ടും ഒക്കെ നമുക്കേറ്റവും മനോഹരമായ രീതിയിൽ നമുക്കൊരു വരുമാനമുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ഈ വീടിൻ്റെ ചുറ്റുമുള്ള കൃഷി അതുപോലെതന്നെ നമുക്ക് സസ്യങ്ങൾ ചെടികളൊക്കെ നമുക്ക് നമുക്ക് ഒരുപക്ഷെ നമുക്കൊരു അതിജീവനത്തിനുള്ള ഒരു അവസരം കൂടിയാണ് മലിനീകരണത്തിൽനിന്നുള്ളൊരു മോചനം കൂടിയാണ് അപ്പം നമ്മൾ നേരിടുന്ന ഏറ്റവും ഭയാനകമായൊരു കാര്യമാണ് മലിനീകരണം അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആളുകളുടെയൊക്കെയൊരു രീതിയും അതിനെ പ്ലാസ്റ്റിക്ക് കവറിലാക്കി അത് പൊതുയിടങ്ങളിൽക്കൊണ്ട് നിക്ഷേപിക്കുകയും അത് പൊതുജനങ്ങൾക്ക് ശല്യമായിത്തീരുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അത് ഒരിക്കലും അതു പാടില്ല നിയമം മൂലമത് നിയമം അതിന് നിയമം വ്യക്തമായ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽപ്പോലും നമ്മുടെ ആളുകൾക്കതിനെക്കുറിച്ച് ബോധ്യമുണ്ടോയെന്ന് സംശയമാണ് പക്ഷെ നമ്മളത് കുട്ടികളുടെ പാഠപുസ്തകത്തിൽ പാഠ്യപുസ്തുവായിട്ട് അത് മാറണം ഈ പരിസരശുചീകരണവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് തന്നെ പഠിക്കത്തക്ക രീതിയിലവരുടെ സിലബസ്സിലുൾക്കൊള്ളിച്ച് അവരെ ചെറുപ്പം മുതലേ ശീലിപ്പിക്കണം അതുപോലെതന്നെ വീടുകളിലെ മാതാപിതാക്കൾ കുട്ടികളേക്കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് അവരിലേക്ക് ഈയൊരു സന്ദേശമെത്തണം അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക ഇപ്പോൾ വിദേശ സംസ്കാരമാണ് യൂസ് ആൻ ത്രോ ഉപയോഗിച്ചതിനുശേഷം വലിച്ചെറിയുക അത് ബന്ധങ്ങളെപ്പോലും ബാധിക്കിന്നുണ്ട് പ്രായമായവരെയൊക്കെ ഉപയോഗമില്ലാത്തവരെ ഉപേക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോഴത് വളരെ ദൂരവ്യാപകമായ ഫലങ്ങളുളവാക്കുന്ന കാര്യങ്ങളാണിതെല്ലാം അപ്പോൾ കൊച്ചുകൊച്ച് കാര്യങ്ങളായാലും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ അവരെ അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകളെ ഒരുക്കിയെടുക്കാനായിട്ട് അതങ്ങേയറ്റം ആകർഷകമായ രീതിയിൽ ഒരുക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം അതിന് ഏറ്റവും നല്ല മാർഗ്ഗം ചെടികൾ വെച്ചു പിടിപ്പിക്കുക അതുപോലെതന്നെ കാഴ്ച്ചയ്ക്കിമ്പകരമായിട്ടുള്ള അതും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള രീതിയിൽ വേണം പരിസ്ഥിയെ സംരക്ഷിക്കുന്ന രീതിയിൽ പരിസ്ഥിയെ സംരക്ഷിക്കുകയെന്ന് മാത്രമല്ല പരിസ്ഥിതി സൗഹൃദം ആയിട്ടുള്ള രീതിയിൽ വേണമിതിനെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്ക് പോലെയുള്ള മാലിന്യങ്ങളെ നൂറു ശതമാനവും ഒഴുവാക്കിക്കൊണ്ട് പ്രകൃതിക്ക് കോട്ടംതട്ടാത്ത രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ വീടും പരിസരവുമൊക്ക ആകർഷകമായിട്ട് നമുക്ക് സൂക്ഷിക്കാനായ്ട്ട് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വീടും അതിൻ്റെ പരിസരവും കൂടുതൽ വൃത്തിയാവുന്നു ആകർഷകമാകുന്നു ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ചില പോസിറ്റീവ് എനർജികൾ നമുക്കതിൽ നിന്ന് നൽകും തന്നെയുമല്ല നമ്മൾ പുതിയ തലമുറയ്ക്ക് നല്ല സന്ദേശവുമാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തരും അവരുടെ വീടിനെ ഇതുപോലെ ആകർഷകമാക്കി ഭംഗിയാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഗ്രാമങ്ങളൊക്കെ നമ്മുടെ ഈ പൊതു ഇടങ്ങളൊക്കെ എത്രമാത്രം മനോഹരമായിരിക്കും പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളെ നമ്മൾ പലപ്പോഴും അത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് പക്ഷെ ആവൊരു സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് തീർച്ചായിട്ടും നമ്മുടെ നാട് ഇതിനേക്കാൾ സുന്ദരമാക്കിമാറ്റാൻ സാധിക്കും കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് നമ്മുടെ കേരളം ഈ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ജൈവവൈവിദ്യം അത് ലോകപ്രശസ്തമാണ് അങ്ങനെയുള്ള ആ ജൈവവൈവിധ്യത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ സുന്ദരമായ രീതിയിൽ ആവിഷ്ക്കരിക്കുവാനും അതിനെ പുനരുപയോഗിക്കുവാനും അതിനെ പുതിയ തലമുറയ്ക്കായിട്ട് കാത്തുസൂക്ഷിച്ചു ഒരുക്കി വെക്കുവാനുവൊക്കെ നമുക്ക് കടമയുണ്ട് ചുമതലയുണ്ട് അതിന് നമ്മൾ പുതിയ തലമുറയെ നമ്മൾ കൂടുതലായിട്ട് പരിശീലിപ്പിക്കണം എന്നുള്ള ഒരാഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു